ഇപ്പം ഇവിടത്തെ കാര്യം എന്നു വെച്ചിട്ടുണ്ടങ്കിൽ നല്ല ഡോക്ടർമാർ ഉണ്ടോന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാർ ഉണ്ട് പക്ഷെ അവരൊക്കെ എന്നുവെച്ചിട്ടുണ്ടങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ആണല്ലോ ഇപ്പോൾ അവർ അതായത് നമ്മൾ പകലൊക്കെ പോകുമ്പോൾ അവർ നമ്മളിപ്പോ അവരെ അവരെ വീട്ടില് നേരിട്ട് പോകുമ്പം അവർ നമ്മളെ മര്യാദയ്ക്ക് നോക്കൂല പക്ഷേ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണെൽ മര്യാദക്ക് നോക്കും അതായത് നമ്മളവിടുന്നു അവർക്ക് ഫീസ് കൊടിത്തിട്ടാണല്ലോ ഇപ്പം ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ നേരിട്ട് പോയി കാണിക്കുവാണെങ്കിൽ അവർ വലിയ കാര്യമായിട്ട് ഒന്നും നോക്കൂല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നോക്കിയാൽ നോക്കി അവരു പെട്ടന്നു വിടും എന്തെങ്കിലും മരുന്ന് എഴുതി തരും അത്ര തന്നെ പിന്നെ ശുചിത്വമുള്ള വാർഡുകൾ ഉണ്ടോന്നു ചോദിച്ചിട്ടുണ്ടങ്കിൽ ആദ്യമൊക്കെ ഭയങ്കര ശുചിത്വ കുറവായിരുന്നു ഇപ്പോൾ പക്ഷേ അവർ രണ്ടുമൂന്ന് വട്ടമൊക്കെ തുടയ്ക്കും അങ്ങനത്തെനൊക്കെ നല്ലത് തന്നെയാണ് ആവശ്യത്തിന് കിടക്കകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്സിജൻ മരുന്നുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ വയനാട്ടിലെ മെഡിക്കൽ കോളേജിൽ ബട്ട് മര്യാദക്ക് നോക്കാനുള്ള ഡോക്ടർമാരില്ല അതാണ് മെയിൻ പ്രശ്നം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല കുറെ സാങ്കേതിക വിദ്യകളും സ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിട്ട് കാര്യമില്ലല്ലോ സാങ്കേതിക വിദ്യകളുടെ ഇതും വളരെ കുറവാണ് ഇപ്പം എന്തെങ്കിലുമൊന്ന് ഉണ്ടെങ്കിൽ അതായത് അവർ പറയും മേപ്പാടി പൊയ്ക്കോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും ഇപ്പം ഇവിടെ ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് നമ്മളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫറ് ചെയ്യുന്നത് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസിലാവും ഇവിടെ എത്ര അതായത് എത്രത്തോളം മാനന്തവാടി ഹോസ്പിറ്റലിൻ്റെ ആ ഒരു അവസ്ഥ പിന്നെ ഈ സേവനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാങ്കേതിക വിദ്യകളും റെഡി ആക്കുക അതായത് എന്തിനും തയ്യാർ തയ്യാറായിട്ടുള്ള കുറെ ഡോക്ടർമാരും അതായത് അത്യാവശ്യം നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള ഡോക്ടർമാർ നല്ല നഴ്സുമാർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റെഡി ആക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് നമ്മളിപ്പോൾ ഡോക്ടർമാരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താന്നു വെച്ചിട്ടുണ്ടങ്കിൽ രോഗികളെ പരിപാലിക്കാനും അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവത്തിനെ പോലെ കാണേണ്ട ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ജീവനൊക്കെ അവരുടെ കൈയ്യിലാണുള്ളത് അപ്പോൾ അവർ മര്യാദക്ക് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും മര്യാദക്ക് മുന്നോട്ട് പോവാം അതൊക്കെയാണ് എൻ്റെയൊരു നിർദ്ദേശങ്ങൾ